എനിക്കൊരു മകളാണ് അപ്പോൾ എത്രത്തോളം വിദ്യാഭ്യാസം അവൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടോ അത്രത്തോളം പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമാണ് അവൾക്ക് എന്താണോ പഠിക്കേണ്ടത് അതുതന്നെ നമ്മുടെ നിർബന്ധത്തിന് അല്ല അത് തന്നെ പഠിക്കണം എന്നാണ് പഠിക്കാൻ അവൾ ആഗ്രഹത്തിന് അവൾ പഠിക്കട്ടെ പിന്നെ പെൺ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് ആര് നിർബന്ധിച്ചോ അങ്ങനെയൊന്നുമില്ല അവരെ പഠിക്കാൻ വിടാതെ ഇരിക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ആൺ പെൺ വേർതിരിവ് ഒന്നും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പിന്നെ അവർ പഠിക്കുന്നതിന് അനുസരിച്ച് അവർക്ക് അവരുടെ താല്പര്യം എന്തൊക്കെ പഠിക്കാനാണോ അത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇന്നത്തെ കാലത്ത് ഇല്ലാന്നാണ് എൻ്റെ ഒരു രീതി